ജോലി സ്ഥലത്ത് എന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അധികകാലം ഒന്നും അങ്ങനെ അതായത് അധിക ജോലിയൊന്നും ചെയ്തിട്ടില്ല ഞാൻ ഒരു വർഷമൊക്കെയേ ജോലി ചെയ്തിട്ടുള്ളൂ അതൊരു അക്കൗണ്ടന്റായിട്ട് ഒരു അക്കൗണ്ടിങ്ങ് സ്ഥാപനത്തിലായിരുന്നു അതെന്താണെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അന്ന് അത്ര അതായത് വലിയ വലിയ തെറ്റുകളൊന്നും സംഭവിച്ചിട്ടില്ല ഇപ്പം നമ്മൾക്ക് അതായത് എനിക്ക് ടാലിയായിരുന്നു അപ്പം എന്താണെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു ഹാർഡ്വെയറ് കടയിലായിരുന്നു നിന്നത് ഹാർഡ്വെയറ് അതായത് സാധനങ്ങളൊക്കെയുള്ള ഹാർഡ്വെയറ് കടയിലായിരുന്നു നിന്നത് അപ്പോൾ സാധനങ്ങളൊക്കെ മേടിക്കാൻ അതായത് ബൾക്കായിട്ട് മേടിക്കാൻ കുറേപേർ വരും അപ്പോൾ എനിക്ക് എന്നു വച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മെയിൻ ജോലിയെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ലാപ്പിലത് കമ്പ്യൂട്ടറിൽ അത് അടിച്ചു കയറ്റലും അതായത് അവർ മേടിച്ച് മേടിക്കുന്ന സാധനങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് ടാലിയാക്കിയിട്ട് ബാലൻസ് ഷീറ്റാക്കിയിട്ട് റെഡിയാക്കി വയ്ക്കലാണ് എൻ്റെ മെയിൻ ജോലി പിന്നെ എന്താണെന്ന് വച്ചിട്ടുണ്ടങ്കിൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നമ്മളെ സിസ്റ്റത്തിലുള്ള പൈസയും നമ്മുടെ അതായത് നമുക്ക് കിട്ടിയ പൈസയും രണ്ടും കൂടി ടാലി ആക്കി വയ്ക്കണം അതാണ് എനിക്ക് മെയിൻ ആയിട്ടുള്ളൊരു പ്രശ്നം അപ്പോൾ അത് ഏകദേശം ദിവസവും എല്ലാം റെഡിയാകും പക്ഷെ ഒരു ദിവസം എന്നു വച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മുതലാളിക്ക് ഒരു അഞ്ഞൂറ് രൂപ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു അഞ്ഞൂറ് രൂപേന്റെ കണക്ക് അതായത് ഞാൻ അത് എഴുതി വയ്ക്കാൻ മറന്നുപോയി അന്ന് ഭയങ്കര തിരക്കുള്ള ദിവസമായിരുന്നു അപ്പോൾപ്പിന്നെ അതെഴുതി വയ്ക്കാൻ മറന്നുപോയിപ്പോയി അപ്പോൾ അത് അതാണ് എനിക്ക് തെറ്റ് എനിക്ക് ഏറ്റവും വലിയ തെറ്റ് പറ്റിയതതാണ് അപ്പോൾ എനിക്ക് ആ അഞ്ഞൂറ് രൂപേന്റെ ഇതിന് ഞാൻ കുറേ ടെൻഷൻ അടിച്ചു പിന്നെ മുതലാളി എന്നെ അതായത് പറഞ്ഞു നീ പിന്നെ അത് ടാലി ആവാത്ത നീ എനിക്ക് തന്നിട്ടല്ലേന്നുള്ള രീതിയിൽ മുതലാളി സംസാരിച്ചു അവർ ചിരിച്ച ചിരിച്ചിട്ടാണ് സംസാരിച്ചത് എന്നാലും അതാണ് എനിക്ക് ഏറ്റവും വലിയ തെറ്റ് പറ്റിയ ഒരു കാര്യം എന്നു വച്ചാൽ അതാണ്